എൻ്റെ എൻ്റെ വീട്ടിൻ്റെ അല്ലെങ്കിൽ എൻ്റെ സിറ്റിയുടെ അടുത്തുള്ള കോളേജുകളിൽ ലഭ്യമായിട്ടുള്ള കോഴ്സ്കൾ ഒരുപാടുണ്ട് ഡിഗ്രി പിജി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ കോഴ്സ് ഫാഷൻ ഡിസൈനിംഗ് കോഴ്സ്കൾ അല്ലെങ്കിൽ ഇപ്പോൾ കണ്ടുവരുന്ന ക്രാഫ്റ്റ് ഐറ്റംസ് കോഴ്സുകൾ അങ്ങനെ ഒത്തിരി ഒത്തിരി ഒത്തിരി കോഴ്സ്കൾ ഇന്ന് കണ്ടു വരുന്നുണ്ട് വിദ്യാർത്ഥികൾ മറ്റുള്ള ഇടങ്ങൾ ഇടങ്ങളെ തുടർ പഠനതിന് പോകേണ്ടി വരുന്നവരുമുണ്ട് ഇഷ്ടങ്ങൾ കൊണ്ട് തുടർപഠനത്തിന് വിദേശത്ത് പോയിട്ട് ജോലി ചെയ്യുന്നവരുമുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടങ്ങളാണ് അത് ഇവിടെ കോഴ്സ് ഇല്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ അവിടെ കൂടുതൽ കോഴ്സ് ഉണ്ടായിട്ടോ മാത്രമല്ല അവരുടെ ഇഷ്ടത്തിന് പ്രാധാന്യം നൽകി കൊണ്ട് മാത്രമാണ് അവർ അത്തരത്തിലുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നത് എൻ്റെ അടുത്ത് ഞാൻ ഞാൻ പഠിച്ചു വന്നിട്ടുള്ള കോളേജുകളിൽ ഡിഗ്രി പിജി അതു കഴിഞ്ഞിട്ട് അതു അതു കൂടാതെ അവിടെ തന്നെ അനതർ കോഴ്സുകളും അവർ പ്രമോട്ട് ചെയ്യുന്നുണ്ട് ബിഎഡ് സെൻ്ററുകളായാലും അല്ലെങ്കിൽ കമ്പ്യൂട്ടർ കോർസ് അധിഷ്ഠിത സെൻ്ററുകളായിട്ടുണ്ടെങ്കിലും കേക്ക് മേക്കിംഗ് അല്ലെങ്കിൽ ഫാഷൻ ഡിസൈനിംഗ് ക്രാഫ്റ്റ് വർക്ക് അത്തരത്തിലുള്ള ഒരുപാട് കോഴ്സുകളും ഇന്ന് സുലഭമായിട്ടുണ്ട് വിദ്യർഥികൾകൊക്കെ ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള കോഴ്സുകൾ എടുത്തു പഠിക്കാൻ വളരെ താൽപര്യവുമാണ് എല്ലാ മേഖലകളിലും ഒരു എല്ലാ മേഖലകളിലും വ്യത്യസ്തരായിട്ടുള്ള കുട്ടികൾ പോവുകയും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പഠിക്കുകയും ചെയ്യുന്നുണ്ട് എല്ലാ കോളേജുകളിലും വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലുള്ള എല്ലാ വിധ സൗകര്യങ്ങളും സഹായങ്ങളും എല്ലാം വളരെ ഇപ്പം എക്വിപ്മെൻസിൻ്റെ കാര്യത്തിലായാലും ഈ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യത്തിലായാലും അതിൻ്റേതായിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും സ്കൂളുകളും കോളേജുകളും അധികൃതരും അതിൻ്റെതായിട്ടുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്താറുണ്ട് തുടർപഠനത്തിന് പോയി പോകുന്ന കുട്ടികളുടെ ഇന്ന് കൂടുതലും കൂടിവരുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് എന്നാലും നാട്ടിലെ വിദ്യാഭ്യാസത്തെ മാറ്റിവെച്ചിട്ട് അല്ലെങ്കിൽ അത് ഇഷ്ട്ടമില്ലാത്തതു കൊണ്ട് പോകുന്നതല്ല മറിച്ച് അവരുടെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുത്തിട്ട് അവർക്ക് ആവാൻ അവർക്ക് അവിടെ പോയാൽ അവർക്ക് ഇവിടത്തേതിനെക്കാളും കൂടുതൽ അവർക്ക് തൻ്റെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാൻ സാധിക്കും എന്നുള്ളൊരു കാരണം കൊണ്ട് വിദേശത്തേക്ക് മാറി പഠിത്തം മാറി പഠിക്കുന്ന പേരുമുണ്ട്